ആ മലബാർ റസ്റ്റോറൻ്റിലേക്ക് സ്വാഗതം ഇതാരാണ് സംസാരിക്കുന്നത്

ട്രഡീഷണൽ ഫുഡ് ഫുഡായിട്ട് നമ്മൾക്ക് നിങ്ങൾ കുറേപേരായിട്ട് വരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ ഓക്കെ നിങ്ങൾ വരുന്ന ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്യണം

ആ ഉണ്ട് ഉണ്ട് ഉണ്ട് സാർ ഫുഡ് നമുക്ക് സദ്യയായിട്ടുണ്ട് സദ്യയ്ക്ക് നൂറുരൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒരു പത്ത് പതിനഞ്ച് കറി ഉണ്ടാവും രണ്ട് പായസം ഉണ്ടാവും അങ്ങനെയാണ് ഉച്ചയ്ക്ക് രാവിലെ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് വെജിറ്റേറിയനാണോ നോൺവെജ് ആണോ എങ്ങനെയാണ് ആ രാവിലെ ഇപ്പം നിങ്ങൾക്ക് എന്താണെന്നു വച്ചാൽ ഇവിടെ ഇപ്പം അപ്പം മുട്ടക്കറി പിന്നെ ഇടിയപ്പം കടലക്കറി പുട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതുപോലെ നമ്മൾ ഇവിടെ റെഡിയാക്കും ഫിഷ് ഐറ്റംസ് കരിമീൻ ഫ്രൈ ഉണ്ട് നെത്തോലി ഉണ്ട് പ്രോൺസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് നമ്മൾ നിങ്ങൾ വരുമ്പോഴേക്കും എന്തൊക്കെ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിവിടെ സെറ്റ് ആക്കിവെക്കും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് സാർ ആ ഉണ്ട് ഉണ്ട് എല്ലാം ഇവിടെത്തന്നെ അവൈലബിളാണ് ഓ ഓ തീർച്ചയായും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മൾ എത്തിച്ചു തരണമെങ്കിൽ നമ്മൾ എത്തിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ടും വരാം ഇത് പിന്നെ കൽപ്പറ്റ കൽപ്പറ്റ വൈത്തിരി എന്ന് പറഞ്ഞ റോഡിലുള്ള സ്ഥലമാണ് ഓക്കെ എടാ ആ അതെ അതെ അതെ അതെ

ആ ആ ഓക്കെ സാർ ഓക്കെ സാർ ഏഹ് വരുന്നതിന് മുന്നേ ഒന്ന് നമുക്ക് രണ്ടുദിവസം മുന്നേ ഒന്ന് നിങ്ങൾ ഒന്നുകൂടി വിളിച്ചു പറയണം ആ ഒക്കെ സാർ ഓക്കെ താങ്ക് യൂ